പൊതുവേ ഉള്ളൊരു അന്ധവിശ്വാസം പഴയ കാലത്ത് തന്നെ തുടങ്ങുന്നതാണ് തുടങ്ങി അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടമേ മാറീട്ടുണ്ട് ജനം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പല പ്രകോതിമായ കഷ്കികൾ മുൻ മേലാളിത്തത്തിനും എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാനുള്ളൊരു മാർഗമാണ് ഈ അന്ധവിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പറഞ്ഞ് പറ്റിക്കരുത് മലയാളത്തിൽ പറഞ്ഞാൽ പറ്റിക്കൽ തന്നെയാണ് പഴയൊരു കാലത്ത് നമ്മുടെ സതി ഭർത്താവ് മരിച്ച് കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണമെന്നുള്ള സതിയാന്ന് വളരെ കാലങ്ങൾ അത് പിന്തുടർന്ന് പോയൊരു അന്ധവിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ളൊരു കാര്യമാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടവർ കൂടെ മറ്റയാള് തീയിലെടുത്തേക്ക് ചാടുന്ന തീയിലേക്കെടുത്ത് ചാടുന്ന രീതിയിലേക്കാണ് ആ സംഭവം നടന്ന് പോകുന്നത് അത് നിങ്ങളുടെ രാജാറാം മോഹൻ റോയ് നിർത്തലാക്കിയതു കൊണ്ട് അത് വളരെ കു കാലാവത് കുറഞ്ഞു പോയി എന്ന് തന്നെയാലും ഈ ഒരു കാലഘട്ടത്ത് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ കാലഘട്ടത്ത് തന്നെ ഒരുപാട് അന്ധവിശ്വാസമാണ് രക്ഷ കെട്ടൽ രോഗങ്ങൾ മാറാൻ വേണ്ടീട്ട് രക്ഷ കെട്ടിക്കോണ്ടിരിക്കൽ രാശി വെച്ചിട്ട് കൈയ്യിമ്മേലെ പൈസ കളഞ്ഞിട്ട് രാശി വെക്കും രാശി വെച്ച് കൂടോത്രം ചെയ്യൽ രക്ഷ കെട്ടൽ രക്ഷാബെന്ധം എന്തെന്ന് അറിയാതെ കുരിശി കോഴി എന്നുള്ള കാര്യങ്ങളെല്ലം നടത്തിക്കൊണ്ട് പോകൽ രാശി വെക്കും എന്ന് പറഞ്ഞാൽ രാശി വെച്ചിട്ട് അവർ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി പറയും ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും പക്ഷേ അവരെ രക്ഷ അവർ മരുന്ന് വെക്കേണ്ടടുത്ത് മരുന്ന് വെക്കി മാത്രമായി ഈ അസുഖങ്ങളെല്ലാം മാറുമെന്നുള്ള രീതി ഈ ഇക്കാലഘട്ടത്തു പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് മതപരമായി എന്നെ മതപരമായി ചെയ്യുന്ന ഒരുപാട് അന്ധവിശ്വാസം അന്ധവിശ്വാസം എന്നു പറഞ്ഞാൽ എല്ലാ മതത്തിലും അന്ധവിശ്വാസിൻ്റെ പോരാണ് ഇത് ഹിന്ദു മതമായാലും മുസ്ലിമായാലും ക്രിസ്ത്യൻസായാലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഹിന്ദു മതത്തിൽ ഈ പീരീഡ്സിൻ്റെ സമയത്ത് അകറ്റി നിർത്തുന്നൊരവസ്ഥ ഈ കാലഘട്ടത്തും പല ദിക്കിലും നടന്നു പോകുന്നുണ്ട് എന്ന് ഇല്ലയാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയത് അത് എന്തുകഴിഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യങ്ങളൊന്നുമല്ല ഒരു കാലത്ത് അത് വളരെ വ്യാപകമായി നടന്നു പോയിട്ടുണ്ട് എന്നുള്ള രീതിയാണ് മതപരമായൊരു അന്ധവിശ്വാസം അത് അവർ വരുന്നതും തൊടുന്നതും കയറാൻ പറ്റാത്തതും പൊതുവേ ആരെങ്കിലും പീരീഡ്സിൻ്റെ സമയത്ത് മാറ്റിനിർത്തുന്നൊരവസ്ഥ അത് വളരെ കാലത്ത് കുറച്ച് പ്രശ്നങ്ങളത് മാറി ജനങ്ങൾ ഇടപെട്ടതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റീട്ടുണ്ട് കുറേ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റീട്ടുണ്ടെങ്കിലും പൂർണ്ണമായ ഒരവസ്ഥയിൽ മാറ്റാൻ വേണ്ടി പറ്റീട്ടില്ല പിന്നീടത് മറ്റ് മതവിശ്വാസങ്ങളുടെയിടയിൽ മുസ്ലീമ്സിൻ്റെ രീതി അവർ പള്ളിയിലേക്ക് സ്ത്രീകളെ കയറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് അതിൻ്റെ രീതിയിലേക്ക് അവർ അടുപ്പിക്കാത്ത രീതിയിലുള്ളൊരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് ഈ കാലഘട്ടത്തും നടന്നു പോവുന്നുണ്ട് നമ്മുടെ അതുപോലെ ഈ ശൂലം കുത്ത് ഗരുഡൻ തൂക്കൽ അതായത് പല കർമ്മ ഈ ഗരുഡൻ തൂക്കലെന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാന്ന് ഗരുഡൻ തൂക്കൽ പറഞ്ഞാൽ മറ്റുള്ളവരെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടി അവർ കൂലി കൊടുത്തിട്ട് അവർ പ്രത്യേക ഒരാളെ നിർത്തിക്കൊണ്ട് അവരാണ് ഈ ഗരുഡൻ തൂക്കൽ നടത്തിയിട്ട് നടത്തുന്നവർക്ക് കൂലിയാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടതൊരു അവക്ക് ഈ ചെയ്യണ്ടവർ ചെയ്യാതെ ഇത് മറ്റുള്ളവർക്ക് കൂലി കൊടുത്തിട്ട് ഈ പൈസ ഉള്ളവർ അതിൻ്റെ ബെനിഫിറ്റ് ഏറ്റുവാങ്ങുന്നൊരു അവസ്ഥയിലേക്കാണ് ഈ അന്ധവിശ്വാസമെല്ലാം ഈ ഗരുഡൻ തൂക്കലെന്ന് പറഞ്ഞ് നമ്മുടെ നടന്ന് തമിഴ് നാട്ടിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് തമിഴ് നാട്ടിലെങ്ങാനും വളരെ കൃത്യമായ അന്ധവിശ്വാസം ഉണ്ട് കേരളത്തിൽ കേരളത്തിലിപ്പം കേരളത്തിൽ പോലും ഇപ്പം ബലി ദാനം നടക്കുന്നുണ്ട് മനുഷ്യബലി അടക്കം നടന്നു പല ഇപ്പളും നമ്മളടുത്ത് കാലത്ത് കേട്ടത് കേരളത്തിൽ ഈ നൂറ്റാണ്ടിൽ പോലും മനുഷ്യബലി നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ വളരെ നമുക്ക് കൊന്ന് ഒരാളെ കൊന്നിട്ട് അവർക്ക് കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വെറും ഒരു മനുഷ്യനെ ബലി കൊടുത്ത് കൊല്ലുന്ന രീതി കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന രീതി സൗത്ത് ഇന്ത്യയിലെല്ലാം വളരെ നിർണ്ണായകമായ രീതിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാറ്റേണ്ട സമയമായി അതിന് പല അന്ധവിശ്വാസങ്ങളും മറ്റുള്ള മേലാളികൾക്ക് വേണ്ടി മേലാളികൾക്ക് അവർക്ക് ജീവിച്ചു പോകാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് കാണാൻ വേണ്ടി പറ്റല് മേലാളികൾക്ക് നിലനിൽപ്പിന് ഈ അന്ധവിശ്വാസം നടത്തിക്കൊണ്ടു പോയാൽ മാത്രമേ മറ്റുള്ളവർക്ക് അവരുടെ നിലനിൽപ്പ് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂ ഇങ്ങനെ അന്ധവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ മേലാളന്മാർക്ക് ഈ മറ്റുള്ളവരെ കബിളിപ്പിച്ചു കൊണ്ട് അവരുടെ പണക്കൊയ്ത്ത് നടത്താം വേണ്ടി പൊയ് ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ നമ്മൾ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവണം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വരേണ്ട ജനങ്ങൾ തന്നെ അവർ ഇടയിൽ പോയി അവർ അവർ ഈ വലയിൽ വീഴുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങൾ ഇന്നലെ നമ്മള് ഒരു കാര്യങ്ങൾ വായിച്ചപ്പോൾ നമുക്കറിഞ്ഞത് ഒരു വീട്ടിൽ നാല് അഞ്ച് പേർ ഈ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ദർശനം കിട്ടി ഭഗവാൻ നിങ്ങളാണ് നിങ്ങളാണ് ദൈവം എന്ന് പറയുന്നൊരവസ്ഥയിലേക്കെല്ലാം കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പം അതുപോലെ തന്നെ വളരെ മൃഗബലിയെന്നുള്ളൊരു രീതിയിലൊക്കെ കാലാകാലങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ എല്ലാ കാലത്തും എല്ലായിടത്തും ഇവിടെ നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ ഈ കേരളത്തിൽ പോലും മൃഗബലി നടത്തിയ സംവിധാനം ഈ അത് വളരെ നമുക്ക് വളരെ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ ജനങ്ങളതിൻ്റെ പുറകേ പോവാതെ അത് നമ്മൾക്ക് ഇത് പ്രശ്നങ്ങൾ പരിഹാരം ഏറ്റെടുക്കാൻ വേണ്ടി ജനങ്ങൾ തന്നെ ഈ ഒരവസ്ഥ തിരിച്ചറിഞ്ഞ് കൊണ്ട് അതെങ്ങനെ നമുക്ക് ഈയൊരു ഇതിൽനിന്നൊരു മാറ്റം വരുത്താമെന്നുള്ള രീതിയിൽ ഉണ്ട് രക്ഷ കെട്ടുന്ന കാര്യങ്ങളറിഞ്ഞാൽ രക്ഷ കെട്ടിക്കുട്ടി രക്ഷ കൈക്കും കാക്കും ശരീരത്തിൻ്റെ മൊത്തം ഭാഗത്തും കെട്ടീട്ടും ഒരു രക്ഷയില്ലാതെ നടക്കുന്നവരിപ്പോഴും ഉണ്ട് ഇത് എന്ത് തന്നെ ആയാലും മതപരമായ അന്ധവിശ്വാസം രക്ഷ കെട്ടല് നൂല് കെട്ടൽ പിന്നെ ഉറുക്ക് പിന്നെ രക്ഷാബന്ധനം രീതിയിൽ എഴുതി വെക്കുന്ന രീതി ബലി എല്ലാമുണ്ട് സതി ശൂലങ്കുത്തൽ കൂടോത്രം പുതിയൊരു പരുപാടിയാണ് ഈ കുടോത്രമെന്ന് പറഞ്ഞൊരു പരുപാടി ഉണ്ട് അറിയില്ല ആരെങ്കിലും ഒരാൾ വെറുതെ പോയിട്ട് അവരൊരു ഏജന്റ് ഇതെല്ലാം ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഏജന്റ്ഷിപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെ നമുക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഒരാളവിടെ പോവും മറ്റുള്ളവർ വിവരങ്ങളെല്ലാം അറിയും എന്നിട്ട് ഈ സ്വാമിക്കത് ഒറ്റു കൊടുക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ അവരിങ്ങനെ നിലവിലിങ്ങനെ പൊട്ടീട്ടുണ്ട് ഇങ്ങനെ സംഭവം അവർക്കിങ്ങനെ പരാധീനതകളുണ്ട് അവർക്കിങ്ങനെ വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് കൊടുക്കുകയും രണ്ടാമതിവരെ കൂട്ടിക്കൊണ്ട് പോവുകയും അവര് കാണിച്ചതിന് ശേഷം ആ ഇന്നയാള് ഇത് പറയും അവര് ആ വിഷമങ്ങളെല്ലാം ഇത് ഈ രണ്ടാം ഇടനിലക്കാരനത് ഇടനിലക്കാരനിലൂടെ ഈ സ്വാമി അറിയുകയും സ്വാമി അത് പറയുമ്പം അവർക്കത് വലിയ കാര്യമാകും സ്വാമീടെ അടിമപ്പെട്ട് ഉള്ള പൈസ കൊടുക്കുകയും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ സമൂഹത്തിന് അത് വളരെ വിഷമം പിടിച്ച രീതിയാണ് ഇത് മാറ്റിക്കൊണ്ട് വരേണ്ട സമയം കഴിഞ്ഞു ബലിദാനം എന്ന് പറഞ്ഞാൽ ബലിദാനം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ബലിദാനം കൊടുത്തത് അവര് കാര്യം മുതലെടുക്കാൻ വേണ്ടീട്ടാണ് മേലാളിത്തന്മാരെ ഇവരെപ്പോലെ അന്ധവിശ്വാസങ്ങളും എടുത്തത് അന്ധവിശ്വാസം ഉണ്ടാക്കി വെച്ചത് പല കാര്യങ്ങളും ഇവർക്ക് കൊടുക്കാതിരിക്കാനും ബാക്കി ചെയ്യാതിരിക്കാനും പല നിബന്ധനകൾ വെച്ചുകൊണ്ട് നടത്തുന്നൊരു പരിപാടിയാ ഇത് അത് കൂടോത്രം നടത്തുമ്പോൾ ഈ രാശി രാശി വെക്കുന്നൊരു പ്രശ്നങ്ങളുണ്ട് രാശിക്കാരന് എന്തെങ്കിലും സുഖമില്ലാതിരിക്കുകയോ കാണുന്ന രാശിക്കാരനാണ് രാശിക്കാരനെ കണ്ടു രാശി വെച്ചു രാശി വെച്ചപ്പോളവൻ പറഞ്ഞു ഇന്ന ദോഷങ്ങളുണ്ട് ഈ ദോഷ പരിഹാരത്തിനായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും അപ്പോളവൻ പറയുന്നത് ഇന്ന് ഉറുക്ക് ജപിച്ച് കെട്ടണം അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് കൊടുക്കണം ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനവൻ്റെ പൈസ വാങ്ങിച്ച് കാര്യങ്ങൾ നടത്തും അവർക്ക് കാര്യങ്ങളോ ഒന്നുമില്ല അവർ മറ്റുള്ളവരിൽ നിന്ന് പൈസ പിഴിഞ്ഞെടുത്ത് ഇവൻ്റെ കൈയിലുള്ള പൈസ ബാക്കിയുള്ളവർക്ക് എങ്ങനെ കൊടുക്കാം ഇതൊരു ട്രാക്കാണ് ഈയൊരു ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരും കൂടോത്രം ചെയ്യുന്നവരും ക്രിയകൾ ചെയ്യുന്നവർ ഈ ക്രിയ ചെയ്യുമ്പോൾ ഒരുപാട് പരിഹാരക്രിയകളെല്ലാം മതവിശ്വാസങ്ങളിലുണ്ട് ഒരു മത വിശ്വാസത്തിലല്ല എല്ലാ മതവിശ്വാസങ്ങളിലും അവർ ക്രിയകൾ ചെയ്യാനും പരി കർമ്മങ്ങൾ ചെയ്യാനും ഇതിൻ്റെ ഈ ദോഷങ്ങൾ തീർക്കുകയെന്ന് പറയും അസുഖം വന്ന് കഴിഞ്ഞാൽ ദോഷങ്ങൾ അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ തന്നെ ചെയ്യണം അത് ഈ പരിഹാരങ്ങൾ കൊണ്ടൊന്നും മാറുന്നത് ചെയ്യാൻ പറ്റൂല്ല പിന്നെ പോസിറ്റീവ് എനർജീല് പല കാര്യങ്ങളും ഇന്നും നമ്മുടെ ഇന്ത്യയിലും അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ദയനീയമായ ഒരു കാര്യമാണ് വിഷമമാണ് ഇത് നമ്മൾ തിരുത്തേണ്ടതുണ്ട് തിരുത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് അത് നമ്മൾ തിരുത്തിക്കൊണ്ട് വരണമെങ്കിൽ സമൂഹം തന്നെ ഇടപെട്ടുകൊണ്ട് തിരുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരിക്കേണ്ടത് ഇപ്പം സമൂഹത്തിൽ മാന്യമായ ആൾക്കാരാണ് ഇതിൻ്റെ ബയ്യേ പുറകെ പൊയ്ക്കൊണ്ടിരുന്നത് അവർ തന്നെ ഇതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് തിരുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇത് ജനങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ എന്നുള്ളത്